കോഴിക്കോട് ബേബി മെമ്മോറിയൽ അല്ലേ ഒരു ഓൺലൈനിൽ നിന്ന് ആ ഓക്കേ ഞാൻ ഒരു ഓൺലൈൻ കൺസൾട്ടൻസിൻ്റെ ഇതില് വഴി നമ്പർ എടുത്തതായിരുന്നു

ആ ആൽബി

ആൽബി ചാർളി പതിനെട്ട് വയസ് എനിക്ക് രണ്ട് ദിവസം ആയിട്ട് നല്ല പനി ഉണ്ട് ഇന്ന് നോക്കുമ്പോൾ എനിക്ക് ഇപ്പം ലൂസ്മോഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

ആ ചുമ ഉണ്ടായിരുന്നു ബോഡി പെയിൻ ആദ്യത്തെ ദിവസങ്ങളിൽ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പൊൾ ലൂസ്മോഷൻ ബോഡി പെയിൻ ഒരുമിച്ചാണ് തുടങ്ങിയേ രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് ആ അങ്ങനെ ദൂരെ ട്രാവൽ ഒന്നും ചെയ്യുന്നില്ല ഏകദേശം എന്നാലും ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പം മഴ അങ്ങനെ നനഞ്ഞതായിട്ടൊന്നുമില്ല ആ നോർമൽ ആയിട്ടുള്ള ചുമ ഒമിറ്റിങ് ഒന്നും ഇല്ല ലൂസ്മോഷൻ മാത്രേ ഉള്ളൂ ഒര് മൂന്ന് നാല് തവണ ഇല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല അടുത്ത് ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടില്ല

അതെ ചെറിയ തലവേദന ഉണ്ടായിരുന്നു തലവേദന വരുമ്പം തല കറങ്ങുന്നുണ്ടായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല

ആ പാരസെറ്റോമോൾ കഴിച്ചിരുന്നു ആ ഒരെണ്ണമേ കഴിച്ചുള്ളൂ ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ ഓക്കേ വേറെ എന്തേലും ചെക്ക് ചെയ്യേണ്ടതായിട്ട് എന്തേലും ഉണ്ടോ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ ഡോക്ടർ